ആ അതെ ആരായിരുന്നു ആ ആ ഓക്കെ എന്തായിരുന്നു സാറേ

ഓക്കെ ഇല്ല സാറേ യൂണിറ്റ് ടെസ്റ്റിൻ്റെ കാര്യം തന്നെ അവൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല വീട്ടിൽ വന്നാൽ സ്റ്റാഫ് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല ടീച്ചർമാർ ക്ലാസ് ഒന്നും പഠിപ്പിക്കുന്നൊന്നും ഇല്ല അതും പറഞ്ഞിട്ട് ഇരുന്ന് ഒന്നുകിൽ മൊബൈലിൽ കളിച്ച് ഇരിക്കും ഇല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ കളിക്കാൻ പോവും ഒരു വസ്തു പഠിക്കുന്നില്ല സാറേ ഇവിടുന്ന്

ഓക്കെ എൻ്റെ സാറേ പ്രോഗ്രസ്സ് കാർഡ് ഒന്നും തന്നെ അവൻ കൊണ്ടുവന്നിട്ട് പോലും ഇല്ല ഇതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല നമ്മൾ ഇവിടെത്തന്നെ ഉണ്ട് വീട്ടിൽ തന്നെ ഉള്ളതാണ് ഒരു ഒരു കാര്യവും നമ്മളോട് പറഞ്ഞിട്ടും ഇല്ല ഇവിടെ വന്നാൽ ചോദിക്കുമ്പം പഠിക്കാൻ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പം പറയുവാണ് സ്റ്റാഫ് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല പഠിപ്പിക്കുന്നൊന്നും ഇല്ല അവർ വെറുതെ വന്ന് വർത്തമാനം പറഞ്ഞ് ഇരിക്കലാണ് അതുകൊണ്ട് ഒന്നും പഠിക്കാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ഒന്നുകിൽ ഗെയിം കളിച്ച് ഇരിക്കും അല്ലെങ്കിൽ പുറത്ത് കളിക്കാൻ പോവും അല്ലെങ്കിൽ ടി വി കാണും ഇത് തന്നെയാണ് സാറേ ഇവിടെ പരിപാടി ഏയ് ഇല്ല തന്നിട്ടില്ല ഞാൻ ചോദിച്ചു

ആ എൻ്റെ സാറേ ഞാൻ നമ്പർ മേടിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു അവനോട് അവൻ നാളെ നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് ഇത് വരെ തന്നിട്ടില്ല

ഓക്കെ സാർ നാളെ ഞാൻ എന്തായാലും വരാം അവനെയും കൂട്ടിയിട്ട് തന്നെ വരാം ഓക്കെ സാറേ ഓക്കെ